പാലക്കാട് ജില്ലയ്ക്ക് മഹത്തായിട്ടുള്ള സാംസ്കാരിക പാരമ്പര്യം ഉണ്ട് മലയാളത്തില് സാഹിത്യത്തിൻ്റെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ചിറ്റൂരിൽ തൻ്റെ അവസാന നാളുകളിൽ ചിലവഴിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട് ഇതിൻ്റെ സ്മരണക്കായിട്ടാണ് ചിറ്റൂരിലെ തുഞ്ചത്ത് ആചാര്യ മഠം എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ട് മലയാളത്തിലെ ഏറ്റവും ജനകീയനായ കവിയും തുള്ളലിൻ്റെ സ്ഥാപകനുമായിട്ടുള്ള കുഞ്ചൻ നമ്പ്യാര് ജനിച്ചത് ഈ ജില്ലയിലെ കിള്ളിക്കുറിശ്ശി മംഗലം എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമത്തിലാണ് കേരളത്തിലെ ശാസ്ത്രീയ നൃത്തരൂപങ്ങളായിട്ടുള്ള ചാക്യാർകൂത്ത് തുള്ളൽ കഥകളി മോഹിനിയാട്ടം എന്നിവയെ പരിപാലിക്കുന്നതിനും സമ്പന്നമാക്കുന്നതിനും ഈ പാലക്കാട് ജില്ലയിലെ ഒരുപാട് കലാകാരന്മാര് പ്രവർത്തിച്ചിട്ടുണ്ട് ഏറ്റവും ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കഥകളിയുടെ ഏറ്റവും പ്രശസ്തമായ വിദ്യാലയമായ കല്ലുവഴി ചിട്ട പാലക്കാട് ജില്ലയിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ സംഗീത ഹാരം വരെ വെല്ലുവിളികളിൽ എ എത്താത്തതാണ് കർണാടക സംഗീതത്തിലെ പ്രഗത്ഭനായിരുന്ന പരേതനായ ശ്രീ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടേയും മൃദംഗത്തിലെ അനുകരണീയ വിദ്വാൻ ശ്രീ പാലക്കാട് മണി അയ്യരുടേയും ജനനത്താൽ ജില്ല അനുഗൃഹീതമാണ് പിന്നവിടെ ഏറ്റവും പറയണ്ടത് കൽപ്പാത്തി രഥോത്സവമാണ് മറ്റൊരു പ്രധാന ആഘോഷം ഇത് തമിഴ് ബ്രാഹ്മണന്മാരുടെ ഉത്സവമാണ് വിവിധ ക്ഷേത്രങ്ങളിലെ ദേവതകളെ രഥങ്ങളിൽ ഘോഷയാത്രയായി എഴുന്നള്ളിക്കും ഈ ദിവസം ദൈവം തൻ്റെ ജനത്തെ കാണാൻ പുറപ്പെടുന്നു എന്നാണ് അതിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഇത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ വിളവെടുപ്പിന് ശേഷം പല ഗ്രാമങ്ങള് വേല എന്ന പേരിൽ ഉത്സവങ്ങൾ ആഘോഷിക്കാറുണ്ട് ഈ ഉത്സവങ്ങളിൽ ആനകളുടെ ഘോഷയാത്ര താളവാദ്യങ്ങളുടെ പരമ്പരാഗത വാദ്യമേളങ്ങള് കരിമരുന്ന് പ്രയോഗങ്ങളും ഉൾപ്പെടുന്നു ഈ ഉത്സവങ്ങൾ വളരെ ജനപ്രിയമാണ് അയൽ ജില്ലകളിൽ നിന്നും തമിഴ് നാട്ടിൽ നിന്നുള്ള ആളുകൾ അവരെ കാണാൻ എത്തുന്നു നെന്മാറ വെള്ളെങ്കി വേലയും ചേനക്കത്തൂർ പൂരവുമാണ് ഏറ്റവും പ്രചാരമുള്ളത്